ഹെലോ ഇത് ആസ്ത ഹോട്ടൽ അല്ലേ ഞാൻ വയനാട്ടിൽനിന്ന് വിളിക്കുകയായിരുന്നു പുൽപ്പള്ളിയിൽനിന്ന് എൻ്റെ പേര് സിന്ധു എന്നാണ് ഞാൻ അവിടെനിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഫുഡിനെക്കുറിച്ച് ഞാൻ കുറേ കേട്ടിട്ടൊക്കെയുണ്ട് നല്ല അഭിപ്രായമാണ് ആൾക്കാരൊക്കെ പറയുന്നത് ബട്ട് എനിക്കറിയില്ല എങ്ങനെയാണെന്ന് ഞാൻ അവിടെനിന്ന് കഴിച്ചട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പം അവിടുത്തെ ഫുഡിൻ്റെ നിലവാരമൊക്കെ എങ്ങനെയാണെന്നറിയൻ വേണ്ടി വിളിച്ചതായിരുന്നു എങ്ങനെയാണ് അവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണെന്ന് കേട്ടിട്ടുള്ളതല്ലാണ്ട് കയിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറഞ്ഞുകൂട അതുകൊണ്ട് വിളിച്ചു ചോദിക്കുന്നത് ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ട് അവിടുത്തേ ഉണ്ടാക്കുന്നതൊക്കെ അറിയുന്ന ഷെഫ്സല്ലേ ഫുഡൊക്കെ അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല ഫുഡാണെന്ന് വിചാരിക്കുന്നു ഞാൻ ശരി എന്നാൽ